ഗൂഗിൾ മാപ്പുപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഗൂഗിൾ മാപ് എന്ന് പറയുന്നത് വളരേ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു ആപ്പാണ് അത് പോലെ തന്നെ ഗൂഗിൾ മാപ്പുയോഗിച്ച് നമുക്ക് അറിയാത്ത വഴികളിലൂടെയൊക്കെ പോകുവാനും അത്പോലെ തന്നെ എത്തിപ്പെടേണ്ടടത്ത് കൃത്യമായിട്ട് എത്തുവാനും അത് വളരേയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെഷീൻസിൻ്റെ പ്രവർത്തനങ്ങൾ മെഷീൻസിനെ പ്രവർത്തനങ്ങൾ ഇപ്പം സർവ്വസാധാരണമാണ് ഇപ്പം ഏതൊരു ഏതൊരു കാര്യത്തിനായാലും നമ്മൾ മെഷീൻസിൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ മാപ് അതുപയോഗിച്ച് നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താമോ അത്രത്തോളം തന്നെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും ഫോൺ വഴി നമുക്ക് അറിയാൻ പറ്റാത്തവഴികളുടെയും തിരിച്ച് വരാൻ ബുദ്ധിമുട്ട് ഉള്ള സമയങ്ങൾളും ഒക്കേ ഗൂഗിൾ മേപ്പ് ഉപയോഗിച്ച് നമുക്ക് എത്തപ്പെടേണ്ട സ്ഥലങ്ങളിൽ തന്നെ കൃത്യമായിട്ട് എത്തിപ്പെടുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പല മെഷീൻസിൻ്റെ ഉപയോഗങ്ങൾ അത് വളരെ അധികം ഫലപ്രദമായിട്ട് കണ്ട് വരുന്നു ഇന്ന് ഈ ഈ ഒരു ലോകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെല്ലാം മെഷീൻസുപയോഗിച്ചുള്ള കാര്യങ്ങളാണ് മൊബേൽ ഫോൺ അതുപോലെ തന്നെ എന്തിന് ഏറെ പറയണം വീട്ടുപകരണങ്ങൾ വീട്ട്ജോലികൾ പോലും ഇപ്പോൾ ചെയ്യുന്നത് ഓരോ മെഷീൻസ് വഴിയാണ് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലും അല്ലാതെയുള്ളപ്പോഴും എല്ലാം മെഷീൻസിൻ്റെ ഉപയോഗം വളരേയധികം പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നു അത്പോലെ തന്നെ ഗൂഗിൾ മാപ് ഗൂഗിൾ മാപ് ഉപയോഗിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും പോകുവാനും തിരിച്ചെത്തുവാനുമായിട്ട് സാധിക്കുന്നു പണ്ട്കാലങ്ങളിൽ ആൾക്കാർക്ക് ഒറ്റക്ക് ഇറങ്ങി പോകുവാനും നടക്കുവാനും ഒക്കെ പേടിയുള്ള ഒരവസ്ഥയായിരുന്നു ഇപ്പോൾ നേരെ മറിച്ച് ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി എവിടെ വേണമെങ്കിലും പോകുവാനും വഴി തെറ്റിപ്പോയാൽ തിരികേ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടെ തിരിച്ച് എത്തുവാനും ഒക്കേ സാധിക്കുന്നു കുഞ്ഞുകുട്ടികൾ പോലും ഇപ്പോൾ മൊബെയിലിൽ അകപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മൊബെയിലിൻ്റെ സഹായത്തോട് കൂടിയവർക്ക് പഠിക്കുവാനും ഓൺലൈൻ വഴി അവർക്ക് പഠിക്കുവാനും അവർക്കറിയാത്ത കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുന്നതിനേക്കാളും അവർക്ക് മെഷീൻസ് വഴി മനസ്സിലാക്കുവാനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ താൽപ്പര്യം മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും വളരെ അധികം പ്രാധാന്യം കൊളുത്തുകൊണ്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു പ്രവർത്തി അതിൻ്റെ ഓരോ പ്രവർത്തികളും നമുക്ക് വളരെ കൃത്യവായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നേ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് എന്തുവേണെങ്കിലും ചെയ്യാനും സാധിക്കുന്നു എന്തൊരു ഡൗട്ടുണ്ടെങ്കിലും നമുക്ക് ചോദിക്കുമ്പോൾ തന്നെ നമുക്കതിന് ഉത്തരം തരികയും ചെയ്യുന്നു വളരേ കൃത്യമായിട്ടുള്ള ഒരൂ പ്രവർത്തനങ്ങളാണ് ഇതുവഴി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്

മനുഷ്യർക്ക് ഇപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ട് പോയിക്കോണ്ടിരിക്കുകയാണ് ഈ ലോകത്ത് ഏതൊരു കാര്യം എടുത്ത് നോക്കിയാലും അതെല്ലാം മെഷ്യൻസിൻ്റെ പ്രവാർത്തനങ്ങളൂടെയാണ് അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് മെഷീൻസും അതുപോലെ തന്നേ മെഷീൻസിൻ്റെ ഉപയോഗവും കുട്ടികൾ മൂതൽ മുതിർന്നവർ വരെ ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യുന്നത് മിഷ്യൻസിൻ്റെ സഹായത്തോട് കൂടിയാണ് ഗൂഗിൾ മേപ്പുകളുപയോഗിച്ച് ആൾക്കാരൊരുസ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു അവർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലങ്ങൾ വരേ അവർ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ എത്തിച്ചേരൂവാൻ സാധിക്ക്യൂന്നു അതുപോലെ തന്നെ അവർക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ആഴൽത്തിൽ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ എത്തിച്ച് തരണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചേരുവാനുള്ള ഒരവസരം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു നമുക്ക് കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ പോലും ഗൂഗിൾ മാപിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് കേൾക്കുവാനോ അല്ലെങ്കിൽ കാണുവാനും ഒക്കേ നമുക്ക് വളരേ അധികം ഫലപ്രദമായ ഒന്ന് തന്നെയാണ് ഇനയെല്ല മെഷീൻസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരേയധികം പ്രാധാന്യം ഇന്ന് ലോകത്ത് കൊടുത്ത് കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മൊബെയിൽൻ്റെ ഉപയോഗവും